കേരളത്തിൽ ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ തേടുന്നതിന് ജനങ്ങളീ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതായത് ആരോഗ്യരംഗത്തും കേരളത്തിന് നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളോടും സമാനമാണ് അതായത് വികസന ലക്ഷം ലക്ഷ്യങ്ങൾ കൈവരിക്കണമെങ്കിൽ കേരളം മികച്ച പ്രകടനം കാഴ്ച്ച വെക്കണം കുറഞ്ഞ ജനന ജനന മരണ നിരക്ക് അതിവേഗം കുറയുന്നു പിന്നെ വളർച്ച നിരക്ക് കുടുംബാസൂത്രണം ഇതെല്ലാം അംഗീകരിക്കുകയും ഉയർന്ന ആയുസ്സിൻ്റെ വർദ്ധന എന്തോ അതായത് ഈ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉയർന്ന് വരുന്നതായിട്ട് വീണ്ടും വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതായത് മുമ്പൊക്കെയാണെങ്കിൽ എല്ലാ ആരോഗ്യ നിലവാരത്തിലും ഗുണമേന്മയുള്ള സേവനങ്ങൾ ഒക്കെ ലഭ്യമാക്കുന്നുണ്ട് അതായത് പരിപാടിയുടെ ഭാഗമായും പ്രാഥമിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ കുടുംബശ്രീ സെൻ്ററുകളായി ഘട്ടം ഘട്ടമായി പരിവർത്തനം ചെയ്യുന്ന ലക്ഷ്യമിടുന്നുണ്ട് പിന്നെ ഫലപ്രദമായ കുടുംബ കേന്ദ്രീകൃത ആരോഗ്യ സേവനങ്ങൾ പിന്നേ ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും താങ്ങാവുന്നതും വിലയും സ്വീകാര്യമുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ നമുക്ക് നമുക്കങ്ങനെ ലക്ഷ്യങ്ങൾ പിന്നെയെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ പകർച്ചവ്യാധികൾ പിന്നെ പകർച്ച അല്ലാതെ ജീവിത ശൈലി ആയിട്ടുള്ള രോഗങ്ങൾ ദുരന്തനിവാരണത്തിനായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് പിന്നേ ഈ ആരോഗ്യം മലിനീകരണം ആയിട്ടുള്ള സൗജന്യ അന്തരീക്ഷം പിന്നെ പൊതുജനങ്ങളുടെ മനസ്സിലൂട്ടുന്ന ആരോഗ്യപരമായ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നത് പിന്നെ വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് പിന്നെ അങ്ങനേതായിട്ടുള്ള ഒരുപാട് കേരളത്തിൽ ആയിട്ട് ആരോഗ്യപ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ ഇതായിട്ട് നമുക്ക് നടക്കുന്നുണ്ട് അത് ഈ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഉയർന്നു വരുന്നൊരു വീണ്ടും വികസിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള രോഗങ്ങൾ പൊതുജനാരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നത് അവ പരസ്പരമായിട്ട് ഒരു ഒരു കോഡിനേഷനിൽ വഴി ആവശ്യ പെടുന്നതുണ്ട് പിന്നെയെന്നു പറഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളുടെ കേരളം ഇപ്പം കുറഞ്ഞ ജനന മരണ നിരക്കുകളും അതിവേഗം കുറയുന്ന വളർച്ച നിരക്കുകളും പിന്നെ കുടുംബം ഒരു നമ്മൾ പല തരത്തിലുള്ള ഒരുതരത്തിലുള്ള അല്ല പലതരത്തിലുള്ള ആരോഗ്യ സംവിധാനത്തിനു നമ്മൾ പലതരത്തിലുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് നമുക്കിപ്പം എല്ലാ ആരോഗ്യകേന്ദ്രങ്ങളും ഗുണമേന്മയുള്ള ലഭ്യമാക്കും സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യപരമായ നമുക്ക് പെട്ടെന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഇതും വിട്ടുവീഴ്ച്ചയും നമുക്ക് കിട്ടുന്നുണ്ട് ചില ചില ഇത് ഹോസ്പിറ്റലിലൊക്കെ ചില ഈ ആരോഗ്യപ്രശ്നമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേനും അതിൻറ്റേതായിട്ടുള്ള ഒരു ഇത് നമുക്ക് ലഭിക്കുന്നില്ല